നമ്മുടെ കുട്ടികളെ കൃഷിയിലേക്ക് ഇറക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം എന്നു പറയുന്നത് അവരെ ചെറുപ്പത്തിലെ തന്നെ മണ്ണിലേക്കിറക്കാനുള്ളതാണ് അതായത് ഇപ്പോൾ കൂടുതൽ പേരും പറയുന്നൊരു കാര്യമാണ് ഇപ്പോഴത്തെ മണ്ണിൽ കളിച്ചു കഴിഞ്ഞാൽ അസുഖങ്ങൾ വരും ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ജനറേഷൻ പൊതുവെ പറയുന്നൊരു കാര്യമാണത് മണ്ണിൽ കളിച്ചാൽ അസുഖങ്ങൾ വരും അതു കൊണ്ട് കുട്ടികളെ മണ്ണിലേക്ക് ഇറക്കരുതെന്നു പറയുന്ന വീടിനുള്ളിൽ അടച്ചിടുന്ന ഒരുപാട് പാരൻസുണ്ട് അപ്പം അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്നു പറഞ്ഞാൽ കുട്ടികൾ മണ്ണിൽ കളിച്ചു വളരുന്നതാണ് അവർക്ക് ഏറ്റവും നല്ലത് അവർക്ക് കൊടുക്കാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു കാ കാര്യമെന്നു പറയുന്നത് അവരെ മണ്ണിലിറക്കി കളിക്കുക പണ്ടത്തെ കളികൾ ഒരുപാടുണ്ട് അതേ പോലെ മണ്ണിലിറക്കി കളിക്കുക അതേ പോലെ തന്നെ അവരെക്കൊണ്ട് ചെറുപ്പത്തിലെ തന്നെ ഓരോ തൈകൾ നടിയിപ്പിക്കുക അങ്ങനെയവരെ നമ്മൾ നമ്മളും കൂടി കൃഷിയിലേക്ക് ഇറങ്ങണം അപ്പം പിന്നെ അപ്പോൾ അതു കണ്ടിട്ട് അവർ കൃഷിയിലേക്ക് അവരെയാകർഷിക്കാൻ നമുക്ക് സാധിക്കും പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഒരു തവണ അവരെക്കൊണ്ട് എന്തെങ്കിലും ഇപ്പം ഒരു പെട്ടെന്നു കായ്ക്കുന്ന വാഴക്കന്ന് വാഴക്കന്ന് നടിയിക്കുക അപ്പം അത് ഒരു കുറച്ചു നാൾ കഴിയുമ്പോൾ അത് കുലച്ച് അതിലെ പഴം അവർ കഴിക്കുമ്പോൾ അവർക്കത് ഒത്തിരി സന്തോഷമായിരിക്കും കാരണം താൻ നട്ടു വളർത്തിയ ചെടിയിൽ നിന്നൊരു കായ അവർ കഴിക്കുമ്പോൾ അതവർക്ക് കൂടുതലൊരു വീണ്ടും അതു ചെയ്യാനുള്ളൊരു പ്രചോദനമായിരിക്കും വീണ്ടും അവർക്കു തോന്നും എനിക്കിങ്ങനെ നടണം എൻ്റെ കൃഷി അല്ലെങ്കിൽ ഞാനിങ്ങനെ നട്ട് അതിൽ നിന്നൊരു കായ് കനി ഉണ്ടായി ഞാൻ തന്നെ കഴിക്കാൻ മറ്റുള്ളവർക്കു കൊടുക്കാം അതൊക്കെ അവരുടെയുള്ളിൽ ഒരുപാട് കൃഷിയെ പറ്റിയിട്ടുള്ള ഒരുപാട് ഇഷ്ടം ഉണർത്താൻ സാധിക്കും അതു കൊണ്ടു തന്നെ അവരെ മണ്ണിലേക്ക് ഇറക്കുക ഏറ്റവും മെയിനായിട്ട് വേണ്ടതവരെ മണ്ണിലേക്ക് ഇറക്കുക എന്നുള്ളതാണ് നമ്മൾ വീട്ടിനുള്ളിലവരെ അടച്ചു പൂട്ടി വെച്ചിരുന്നതു കൊണ്ട് യാതൊരു കാര്യമില്ല അവരെ മണ്ണിലേക്കിറക്കുക അവരെക്കൊണ്ട് എന്തെങ്കിലും നടിയിപ്പിക്കുക ഇപ്പോൾ ഒരു തൈ മരത്തൈ മരത്തൈ അതിനേക്കാട്ടിലും ഏറ്റവും നല്ലതൊരു വാഴക്കന്ന് അതാകുമ്പോൾ അവർക്കത് പെട്ടെന്നു തന്നെയത് കുറച്ച് മാസങ്ങൾ കഴിയുമ്പം അത് കായ്ച്ച് അതവർ കഴിക്കുമ്പോൾ അതവർക്കു കൂടുതൽ അതിനോടൊരു കൂടുതൽ താല്പര്യം അവർക്കു തോന്നും നടാൻ എന്തെങ്കിലും നടാൻ കൃഷി ചെയ്യാൻ അതിൽ നിന്നുണ്ടാകുന്ന കായ് കനികൾ ഭക്ഷിക്കാൻ മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഒക്കെ അവർക്കൊരു താല്പര്യം തോന്നുന്നു അതു കൊണ്ടു തന്നെ അവരെ കുഞ്ഞിലേ തന്നെ അവരെ അതിനു വേണ്ടിയിട്ടു നമ്മൾ തയ്യാറാക്കുക എന്തെങ്കിലും നടാനും കുഴികൾ കുഴിക്കാൻ അതിൽ തൈ നടാൻ എല്ലാറ്റിനും നമ്മളവരെ കൂടുതൽ താൽപര്യം അവർക്ക് തോന്നിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ അവരുടെ കൂടെ നിൽക്കുക